ഏതെങ്കിലും തരത്തിൽ എല്ലാ ചെടിയും ഔഷധസസ്യങ്ങൾ തന്നെയാണ് മുരിങ്ങ ആയിക്കോട്ടെ തകരച്ചെപ്പായിക്കോട്ടെ പൊന്നാങ്കണ്ണി ചീര ആയിക്കോട്ടെ ചീര ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ ഞാൻ പറയാം അതാണ് കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഉള്ളത് പിന്നെ പാരസച്ചീര എന്നു പറഞ്ഞൊരു ചീര ഉണ്ട് ഈ കപ്ലത്തിൻ്റെ ഇല പോലെയിരിക്കും കപ്പക്കായില്ലേ അതിൻ്റെ ഇല പോലെയിരിക്കും അത് പക്ഷെ നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ് അപ്പം അപ്പം അതൊക്കെ അങ്ങനെയുള്ളത് നമ്മൾ പിന്നെ ഉപയോഗിക്കാറുണ്ട് ഫുഡ്ഡുണ്ടാക്കാൻ അതേപോലെത്തന്നെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നെ ബ്രഹ്മി അതേപോലെത്തന്നെ പനിക്കൂർക്ക അരൂതാ കറ്റാർവാഴ ഇതൊക്കെ ഔഷധ ഇത് തന്നെയാണ് പിന്നെ ഒരു മഞ്ഞപ്പൂവുണ്ടാകുന്ന സംഭവം കണ്ടിട്ടുണ്ടോ ആടലോടകം ഉണ്ട് വീട്ടിൽ പിന്നെ ഒരു പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ട് തൊട്ടാവാടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ആ ചെടിയൊക്കെ പിന്നെ നമുക്ക് വളർത്താൻ എളുപ്പമാണ് വളർന്നോളും കറിവേപ്പില അതും ഒരു ഔഷധ ഗുണമുള്ള നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് മുടിക്കും നല്ലതാണ് എല്ലാറ്റിനും നല്ലതാണ്